ഗ്രാമ പ്രദേശത്തുള്ള കര്ഷകര് അനുഭവിക്കുന്ന പ്രധാന വെല്ലുവിളികളില് ഒന്നാണ് ധന സഹായം തന്നെ പറഞ്ഞാല് ജനങ്ങള്ക്ക് ഇപ്പോള് സാധാരണക്കാരായ ജനങ്ങളാണ് കൂടുതലും അവര് ഈ കൃഷി ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന കൃഷിയില് ഉണ്ടാകുന്ന വളരെയേറെ നഷ്ടങ്ങള് സഹിച്ചു കൊണ്ട് അവര് കൃഷിയുമായി മുന്നോട്ട് പോകുമ്പോള് അവര്ക്ക് സാമ്പത്തികമായി ആ കൃഷിയില് നിന്ന് വളരെയേറെ നഷ്ടങ്ങള് ഉണ്ടാകാറുണ്ട് ഈ നഷ്ടം വീണ്ടും വീണ്ടും നഷ്ടമായി കിടന്ന് ബാങ്കുകളില് ലോണ് എടുക്കുവാനും അതില്നിന്നു അവരവരുടെ ജീവിതം തന്നെ അവര് പഴാക്കിക്കൊണ്ട് പല വീടുകളിലേയും കുടുംബ നാഥന്മാരുമെല്ലാം നാഥമാരും നഷ്ടപ്പെടാനുള്ള ഒരു വലിയ സാഹചര്യം ഇന്ന് ഈ ഭൂപ്രദേ ഈ നമ്മുടെ ഈ സമൂഹത്തില് പ്രത്യേകിച്ച് ഗ്രാമങ്ങളില് നടമാടിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു സവിശേഷതയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിന് ഗവണ്മെൻറ്റില് നിന്നോ മറ്റ് സ്ഥാപനങ്ങളില് നിന്നോ അവര്ക്ക് വേണ്ടുന്ന ധനസഹായം ഉറപ്പാക്കാന്നുള്ളത് ഏറ്റവും ആവശ്യമായ കാര്യം കാലാവസ്ഥ പറഞ്ഞാല് കാലാവസ്ഥയിലുള്ള മാറ്റങ്ങള് മൂലവും കൃഷിയെക്കെ ഇറക്കി ഇപ്പോൾ കൊയ്ത്ത് ആയി വരുന്ന സമയത്ത് കൃഷി മഴകള് പെയ്യുമ്പോഴ് ആ കൃഷിയിലൂടെ അവര് അദ്ധ്വാനിച്ച അദ്ധ്വാന ഫലമായ നെല്ല് നനഞ്ഞു പോവുകയും അത് കിളിര്ത്ത് അതെല്ലാം നഷ്ടമാവുകയും രണ്ടാമത് അത് കൊണ്ടു പോകാന് വരുന്ന ഏജന്സി മുഖേന അവര്ക്ക് പണം കൊടുക്കാതിരിക്കുകയും പണം കൊടുക്കാതെ തന്നെ അതേ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടിട്ട് അതിന്റെ ധനവുമില്ല ആ സാധനം നശിച്ചു പോകാനും ഇട വരുന്ന അതും ഒരു വലിയ ഒരു ഘടകമായി മാറിയിരിക്കുന്നു പിന്നെ സാങ്കേതിക സഹായം എന്ന് പറയുമ്പോൾ സാങ്കേതികമായ പല ഉപകരണങ്ങളും അവര്ക്ക് ഗവണ്മെൻറ്റ് സബ്സിഡി മുഖേനയോ ഗവണ്മെൻറ്റ് പറയുന്നതനുസരിച്ച് അവര്ക്ക് നല്കുവാന് തയ്യാറായെങ്കില് അവര്ക്ക് ഈ പ്രദേശത്തുള്ള ജനങ്ങള്ക്ക് ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാന് സാധിക്കും പിന്നീട് മലമ്പ്രദേശത്തേക്ക് വന്നാല് കൃഷിയുമായി ബന്ധപ്പെട്ട് ജനങ്ങള് വളരെയേറെ ബുദ്ധിമുട്ടുകള് ഇപ്പോളും വെല്ലുവിളികള് നേരിടുന്നു കാരണം വന്യമൃഗങ്ങളുടെ ശല്യം ഏറ്റവും രൂക്ഷമായ ഈ കാലയളവില് വന്യ മൃഗങ്ങള് ആന മറ്റ് മൃഗങ്ങള് ഈ കൃഷി പന്നി എന്ന പോലുള്ള മൃഗങ്ങളെക്കൊണ്ട് വളരെയേറെ ശല്യം ഇപ്പോള് സ്ഥിരമായി നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ഗവണ്മെൻറ്റ് അതിനു വേണ്ടുന്ന എല്ലാ വിധ സഹായങ്ങളും ചെയ്ത് ആ പ്രദേശത്തെ ജനങ്ങള്ക്ക് ഈ കൃഷി ഇറക്കി മുന്നോട്ട് ജീവിക്കുവാനും അവരുടെ കുടുംബത്തെ പുലര്ത്തി കൊണ്ട് പോകുവാനുമുള്ള ഒരു സഹായം തന്നെ ഉടനടി അതിന് നീതി നടപ്പാക്കണം ചെറുകിട കര്ഷകര്ക്ക് പരിശീലനം ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിലും മുതിര്ന്ന വ്യക്തികളാണെങ്കിലും ഇപ്പം പുതിയ തരം നൂതന കൃഷി സാഹചര്യങ്ങളെ അവര്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി ആ കൃഷി സാഹചര്യങ്ങളെ അതിന്റെ ക്ലാസ്സുകളെടുത്ത് അവര്ക്ക് അതിനുള്ള പിന്തുണയും അതുപോലെ വളം വിത്ത് ഇങ്ങനെയുള്ള ധാ സാധനങ്ങള് സമഗ്രഹികളുമൊക്കെ നല്കിയും കൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവര്ക്ക് വേണ്ടുന്നതായ എല്ലാ ക്ലാസ്സുകള് അതാതു സമയത്ത് നല്കി ഈ കര്ഷകര് അനുഭവിക്കുന്ന ഓരോ വെല്ലുവിളികളേയും അവര്ക്ക് അവരുടേതായ രീതിയില് ഇത് നടത്തി അവരുടെ കുടുംബങ്ങളെ പോറ്റുവാനായും അവരുടെ സാമ്പത്തിക മേഖലയെ ഭദ്രമാക്കുവാനുമായും ഇപ്പോള് നമ്മുടെ ദേശത്തെ ഗവണ്മെൻറ്റ് മറ്റ് ഇതര സര്ക്കാര് രില് നിന്നോ ഉള്ള എല്ലാ ആനുകൂല്യങ്ങളും അവര്ക്ക് ലഭ്യമാറാകുവാന് ആകണം